പക്ഷികളെയും മൃഗങ്ങളെയും സുരക്ഷിതമായിട്ടും മാനുഷികമായിട്ടും സംസ്കരണ സൗകര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മതിയായ സ്ഥലമില്ലാത്തവര് ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ വായു സഞ്ചാരമാർഗ്ഗം കാരണം ഇപ്പം മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടേത് കാരണം മാലിന്യകൂമ്പാരമാണ് നമ്മള് നമ്മള് മാലിന്യകൂമ്പാരത്തിനകത്ത് മാത്രമാണ് ജീവിക്കുന്നത് കാരണം വീടുകളിലെ വെയിസ്റ്റ് ആകാം പൊതുസ്ഥലങ്ങളിലുള്ള വെയിസ്റ്റ് ആകാം എല്ലാം കുടുതലും കൊണ്ട് തള്ളുന്നത് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ തന്നെയാണ് അപ്പം അവിടുന്നൊരു മഴവരുമ്പോഴാണെന്നുണ്ടന്നാലും മഴയത്തും മല വെള്ളപൊക്കമുണ്ടായി അത് നാട്ടിലോട്ടും കാരണം ഭയങ്കരമായിട്ട് നമുക്കതിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മള് ചില സ്ഥലങ്ങളിലോട്ടൊക്കെ അഴിച്ചുവിടുന്ന മൃഗങ്ങളുണ്ട് കന്നുകാലികളുണ്ട് അപ്പം അവരെ അതുങ്ങള് പോയി വെള്ളം കുടിക്കുന്നതിപ്പം തൊടുകളിലാകാം ആറിൻ്റെ സൈഡുകളിൽ നിന്നൊക്കെ ആകാം അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ് കാരണം എന്നച്ചുകഴിഞ്ഞ അന്തരീക്ഷം ഒരിക്കലും നല്ലതായിട്ടതല്ല വായു വായുമലീനീകരണവും എല്ലാം കുടി ഇരിക്കുന്ന ഒരു സ്ഥലത്തേയ്ക്ക് നമുക്ക് അതിന് ഒരിക്കലുംമുമ്പോട്ടെങ്ങനെ പോകാൻ സാധിക്കത്തില്ല